സാർ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ആയിരുന്നു അതിന് എന്തൊക്കെയാണ് എനിക്ക് തന്നെയാണ് അതിന് എന്തൊക്കെയായിരുന്നു സാറേ ആവശ്യമുള്ളത്

ഓക്കേ

ആയിരം അതിൽ കൂടുതൽ ചെയ്യും ചെയ്യാമല്ലോ അല്ലേ ഓക്കേ ഇതിപ്പോൾ നാളെ നിങ്ങൾ ഉണ്ടാകുമോ അവിടെ ബാങ്കിൽ ഓക്കേ ആ ആ അത് കഴിഞ്ഞിട്ട് ഇതെടുക്കാൻ എത്ര സമയം വേണ്ടി വരും അക്കൗണ്ട് ആഹ് ആഹ് ഇതിൽ നിങ്ങൾ ഈ പൈസ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളിതിൽ ഇൻറ്ററസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളും അതെല്ലാം ചെയ്യുന്നുണ്ടോ ഓക്കേ പിന്നെ നാളെ അപ്പോൾ ഒരു മോർണിംഗ് എയ്റ്റ് തേർട്ടീ ആകുമ്പോൾ വരാമല്ലോ അല്ലെ ആഹ് ആഹ് ആധാർ പിന്നെ ഫോട്ടോ അതുമാത്രം മതിയാവുമല്ലോ അല്ലെ

ആഹ് ആഹ് ഓക്കേ സാർ താങ്ക് യൂ